സൈക്കിൾ എങ്ങനെയാണ് പരിപാലിക്കാറുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് അതായത് അത് നല്ലോണം കഴുകി അതായത് ഓവറ് എപ്പോഴും കഴുകാൻ പാടില്ല തുരുമ്പ് പിടിക്കും അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ഭയങ്കര ചെളിയൊക്കെ ആകുവാണെങ്കിൽ അന്ന് കഴുകുക അല്ലെങ്കിൽ നമ്മള് തുടച്ച് നല്ല തുടച്ച് വൃത്തിയാക്കി വെക്കുക പിന്നെ അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മള് കടകളിലൊക്കെ കൊണ്ട് കാണിച്ച് അതൊക്കെ റെഡിയാക്കുക അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിങ്ങ് ചില സമയങ്ങളില് മടുപ്പിക്കുമൊന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ബൈക്കിങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എല്ലാവർക്കും ഇഷ്ട്ടമുള്ളൊരു കാര്യമാണ് അതൊരിക്കലും മടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് പേഴ്സണലി എന്റെ ഒരു അഭിപ്രായത്തില് എനിക്കത് മടുപ്പിക്കുമെന്ന് തോന്നുന്നില്ല പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് ബൈക്കിങ്ങെന്ന് പറയുമ്പോൾ നമ്മള് അതായത് നമ്മള് കാറിലൊക്കെ പോകുമ്പോൾ നല്ല ഫുൾ മൂടി അടച്ചിട്ട് പോകുന്നതല്ലേ പക്ഷെ അതിലും ഒരു ഭയങ്കരൊരു ത്രില്ലുള്ള കാര്യമാണ് ഈ ബൈക്കില് മഴയത്തൊക്കെ പോകാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് മടുപ്പ് വരിക എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിങ്ങനെ കുറെ ദൂരം ഒക്കെ പോകുമ്പം കുറെ ദൂരം ഒക്കെ പോകുമ്പം നമുക്ക് നടുവേദന എടുത്തിട്ട് ഒരു രക്ഷയുണ്ടാവുകയില്ല അത് അപ്പോൾ ഒരു നമുക്കൊരു മടുപ്പ് തോന്നും പിന്നേന്ന് വെച്ചാൽ എന്തൊക്കെ ദീർ ദീർഘ ദൂര യാത്രകളില് എന്തൊക്കെയാണ് ജാഗ്രത ജാഗ്രതയൊക്കെ പുലർത്തേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് ഇടുക അത് മെയിനായിട്ട് നമ്മള് ഫുള്ളി കവേർഡ് ഹെൽമെറ്റ് അതായത് രണ്ട് പേരു ഉണ്ടെങ്കിൽ രണ്ട് പേരും ഇടുക മെയിനായിട്ട് പിന്നെ വണ്ടിയുടെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് വേണം ദീർഘ ദൂര യാത്രയൊക്കെ ചെയ്യാൻ